ഇപ്പോൾ മത്സ്യ ബന്ധനത്തിനു പോകുമ്പം നമുക്ക് എന്താണ് ഏറ്റവും കൂടുതല് രസകരമായിട്ട് തോന്നുന്നൊരു ഘടകം എന്നു വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് മത്സ്യ ബന്ധനം ഒരുപാട് തിരമാലകളും കടലുകൾ താണ്ടിയിട്ട് പോകുന്നൊരു യാത്ര തന്നെയായിരിക്കും നമ്മള് മത്സ്യ ബന്ധനത്തിനു അപ്പോൾ നമ്മള് ഒരുപാടാൾക്കാരൊക്കെ പിന്നെ ഒരുപാട് പിന്നെ അതായത് നമ്മളൊരു അഞ്ചാറ് അല്ലെങ്കിൽ ഒരു പത്തു പേര് കൂടിട്ടുള്ള ഗ്യാങ്ങായിട്ടാണ് ഒരു സംഘായിട്ടാണ് നമ്മള് പോവാ അപ്പോൾ പോവുമ്പം തന്നെ എല്ലാവരും കൂടെ നല്ല കഥയൊക്കെ പറഞ്ഞു പോവുമ്പം അതുതന്ന വലിയൊരു വേറെ രസം തന്നെയാണ് അപ്പൊന്നു വെച്ചിട്ടുണ്ടെങ്കില് പിന്നെന്നു വെച്ചിട്ടുണ്ടേൽ നമുക്ക് അതായത് എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു എങ്ങനെ പോയാലും ഒരു മൂന്നാലു ദിവസം ആ ഒരു ടൈമെടുക്കും നമ്മള് തിരിച്ചുവരാൻ അതായത് പോയിട്ട് തിരിച്ചൊരു നമ്മളെങ്ങനെ ആണെങ്കിലും ആ ഒരു ടൈമെടുക്കും അപ്പം നമ്മള് ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മള് നമ്മടെ ബോട്ടില് തന്നെയാണ് വയ്ക്കുക അപ്പോൾ ഒരുമിച്ച് വെച്ച് എല്ലാവരും ഇരുന്നു ഫുഡൊക്കെ കഴിക്കാൻ നല്ല രസമാണ് പിന്നെന്നു വെച്ചാൽ ഏറ്റവും രസകരായിട്ട് തോന്നുന്ന സന്ദർഭം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരുപാട് മീനൊക്കെ കിട്ടി തിരിച്ചുവരുമ്പോൾ നമുക്ക് മനസിനും ഭയങ്കര സന്തോഷായിരിക്കും ആ ഒരു ടൈമില് നമ്മളെല്ലാവരും എഞ്ചോയ് ചെയ്തിട്ടായിരിക്കും തിരിച്ചു വരിക പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുറയും ഈയൊരു തൊഴിലില് തുടരണം എന്നെന്തായാലും നമ്മളടിച്ചേൽപ്പിക്കില്ല അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവര് ചെയ്തോട്ടെ ആ ഒരു മൈൻഡിലെ എടുക്കുള്ളു